പഴങ്ങളും അതുപോലെ പച്ചക്കറികളും വളര്ത്താന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുണ്ടെങ്കില് ആ ഒരുപാട് എനിക്ക് അതായത് ഇങ്ങനെ ഫ്രുട്സ് പച്ചക്കറികള് അതുപോലെ പൂച്ചെടികളൊക്കെ വളര്ത്താന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതായത് അതിനു മാത്രം സ്ഥലമൊന്നുമില്ല വീട്ടില് എങ്കിലും ഉള്ള സ്ഥലത്ത് ഞാന് എല്ലാം വളര്ത്താന് ശ്രമിക്കാറുണ്ട് അതായത് എൻ്റെ വീട്ടിന്റെ മേലെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ പയറ് അങ്ങനെയുള്ള കാര്യങ്ങള് പയറ് വെണ്ടയ്ക്ക തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളര്ത്തുന്നുണ്ട് പിന്നെ അതേപോലെ റംബൂട്ടാന് റംബൂട്ടാന് ഒരു മരം ഉണ്ട് അതില് ഇക്കൊല്ലം തൊട്ടാണ് കായ് ഫലം ഉണ്ടായത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അതായത് ഓവര് മധുരം ഒന്നുമില്ല എന്നാല് അത്യാവശ്യത്തിനു മധുരം ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല റംബൂട്ടാന് ആയിരുന്നു മെയിനായിട്ടു പഴങ്ങളില് റംബൂട്ടാന് മാത്രമെ ഉള്ളൂ പിന്നെ പച്ചക്കറികളില് ഒരുപാടു തക്കാളി വെണ്ടയ്ക്ക വഴുതന നമുക്ക് അതായതു ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാന് പറ്റുന്ന എല്ലാ ടെറസിന്റെ മുകളില് നമ്മള് ചെയ്യാറുണ്ട് പിന്നെന്നു വച്ചിട്ടുണ്ടെങ്കില് അതായത് ഓവര് പൊക്കം വെക്കാത്ത മരങ്ങളൊക്കെ മേടിച്ചിട്ട് കൃഷി ചെയ്യാനൊക്കെ ഞങ്ങള് ശ്രമിക്കാറുണ്ട് പിന്നെ അപ്പം നമുക്ക് ഈ ഒരു അനുഭവം എന്ന് വച്ചിട്ടൊണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മള് നട്ട ഒരു സാധനതിന്നു പഴങ്ങളൊക്കെ കഴിക്കാന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം ഉള്ളൊരു കാര്യമാണ് അപ്പോന്നു വച്ചിട്ടുണ്ടെങ്കില് അത് എനിക്ക് ഭയങ്കര ഒരു പിന്ന അഭിമാനം ഉള്ളൊരു കാര്യം തന്നെയാണ്